വീടിനോട് അടുത്ത് തന്നെ അടുത്ത് സപ്ലൈ സ്റ്റോറുണ്ട് അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് സാധനങ്ങള് വാങ്ങുന്നതും അഥവാ അവിടെ അവൈലബിൾ അല്ലാ എങ്കിൽ നമ്മള് പറഞ്ഞാല് അവര് അവിടെ കൊണ്ടാക്കും എന്നിട്ട് അവിടുന്ന് തന്നെയാണ് നമ്മള് കൂടുതലായി സാധനങ്ങള് വാങ്ങാറ് ഞാൻ എന്നിട്ട് കൂടുതല് ചെയ്യുന്നത് പെയിന്റിംഗ്സും പേപ്പർ വർക്കുകളുമാണ് പേപ്പർ ക്രാഫ്റ്റിന് ആവശ്യമായ എല്ലാ വ്യത്യസ്ത തരത്തിലുള്ള പേപ്പർ കളർ പേപ്പറുകളായാലും ചാർട്ട് പേപ്പറുകളായാലും സ്കെച്ച് പെൻസ് ബാക്കിയെല്ലാ പെന്ന് പെൻസിൽസ് പെയിന്റിംഗ്സിന് ആവശ്യമായ ബ്രഷ് പെയിന്റ് വാട്ടർ പെയിന്റ് അക്രിലിക്ക് പെയിന്റ് എല്ലാ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങല് എനിക്കേറ്റവും കൂടുതലിഷ്ട്ടം ചെയ്യാൻ വാട്ടർ കളറിങ്ങാണ് പേപ്പറില് വൈറ്റ് പേപ്പറില് വാട്ടർ കളറിങ് ചെയ്യാനാണ് കൂടുതല് താൽപ്പര്യം പിന്നെ വാൾ പെയിന്റിംഗ് ചെയ്യാറുണ്ട് വ വാൾ ഡെക്കറേഷനുള്ള പേപ്പർ ക പേപ്പറിൻ്റെ ക്രാഫ്റ്റാണ് കൂടുതല് ചെയ്യുന്നത് സ്റ്റൈല് ഫ്ലവറാണ് കൂടുതല് ചെയ്യാറ് പിന്നെ ഏറ്റവും കൂടുതല് കരകൗശല വസ്തുക്കളെന്ന പോലെ ചിലപ്പോഴൊക്കെ ചിരട്ടിയില് ഇങ്ങനെ വർക്ക്കള് ചെയ്യും ബോട്ടിൽ ആർട്ട് ചെയ്യാറുണ്ട് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് വളരെ ഇഷ്ട്ടമാണ് അതില് അക്രിലിക് ഉപയോഗിച്ചിട്ടാണ് ബോട്ടിൽ ആർട്ട് ചെയ്യാറ് പിന്നെ ചില സമയങ്ങളിൽ മണ്ണ് ഉയോഗിച്ചിട്ട് ചില രൂപങ്ങളുണ്ടാക്കും പക്ഷെ അത് കൂടുതലായിട്ട് ചെയ്യാറില്ല ഏറ്റവും ഇഷ്ട്ടം ചെയ്യുന്നതില് ഏറ്റവും കൂടുതലിഷ്ട്ടം പേപ്പർ വർക്കുകളും ഓയിൽ പൈന്റ്സ് വാട്ടർ കളേണക്ക